നമ്മളുടെ പ്രദേശത്ത് പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് എന്നു പറഞ്ഞാല് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പിന്നെ സര്വ്വകലാശാല എന്നു പറഞ്ഞാല് ക്യാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ആ കോഴിക്കോട് തന്നെയാണ് പിന്നെ ഇവിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് എന്നു പറഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഗവണ്മെന്റ് ആണെങ്കിൽ തന്നെ ഗവണ്മെന്റ് പ്രൈവറ്റ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയുണ്ട് ഗവണ്മെന്റില് പഠിക്കുന്ന കുട്ടികളുമുണ്ട് പ്രൈവറ്റില് പൈസ കെട്ടി പഠിക്കുന്നവരെക്കെയുണ്ട് രണ്ടിലും പഠിക്കുന്നുണ്ട് താരതമ്യം എന്നു പറഞ്ഞാല് പഠിപ്പിക്കുന്നതൊക്കെ ഒരേ പോലെ തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാല് പ്രൈവറ്റില് പഠിക്കുന്നവര് എന്ന് പറഞ്ഞാല് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പഠിക്കുന്നത് എന്നാൽ ഗവണ്മെന്റില് എന്നു പറഞ്ഞാല് മാസം വരുന്നൊരു പി റ്റി എ ഫണ്ട് മാത്രമെ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പഠിച്ച് കഴിഞ്ഞാല് അവ പിന്നെ ഗവണ്മെന്റില് ആണെങ്കില് തന്നെ ഇങ്ങോട്ട് നമുക്ക് പഠിച്ച് ഇറങ്ങിയോര്ക്ക് പൈസയോക്കെ കിട്ടാറുണ്ട് എന്നാല് പ്രൈവറ്റില് എന്ന് പറഞ്ഞാല് അങ്ങനെ കിട്ടാറൊന്നുമില്ല അങ്ങോട്ട് അവര്ക്ക് കൊടുത്താലേ അവര് ഇങ്ങോട്ട് പഠിപ്പിക്കും അത്ര തന്നെ